എൻ്റെ പ്രദേശത്ത് പ്രധാനമായിട്ടും രണ്ട് പാർട്ടികളാണ് നിലവിലുള്ളത് ഒന്ന് കോൺഗ്രസ് രണ്ട് കമ്യൂണിസ്റ്റ് വേറെ പാർട്ടികൾ ഉണ്ട് കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസും അതുപോലെ തന്നെ കമ്യൂണിസ്റ്റും ആണ് നിലവിൽ വരുന്ന പാർട്ടികൾ നമ്മൾ അങ്ങനെ സഹായിക്കുന്നത് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് എജുക്കേഷന് വേണ്ടി നമ്മളുടെ അവിടെ നിലവിൽ വരുന്ന പാർട്ടി ഏതായാലും അത് ഹെൽപ്പ് ചെയ്യാറുണ്ട് അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സഹായിക്കാറ് ഒരു പൗരനെന്ന നിലയിൽ എന്നെ അവർ എങ്ങനെ സഹായിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് സഹായിച്ചിട്ടുള്ളത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഇവർ ഹെല്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് പഞ്ചായത്തിൽ നിന്നും വീട് വയക്കാനായിട്ട് ലോണ് എല്ലാം അനുവദിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ കൊറോണൻ്റെ സമയത്താണെങ്കിലും ഭക്ഷണം അങ്ങനെ ഒരുപാട് ഹെലപ്പുകൾ നമ്മൾക്ക് ഇവരുടേ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്